ഏതെങ്കിലും ഭക്ഷണങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും ഞങ്ങള് എന്താണ് ചിക്കൻ ബിരിയാണി അൽഫാമുണ്ട് മീൻ വറുത്തത് ഉണ്ട് പിന്നെ ബിരിയാണി പിന്നെ നെയ്ച്ചോറ് പല വെറൈറ്റീസ് ഉണ്ട് അത് അല്ലാതെ ബാക്കി എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് പിന്നെ എന്താണ് കരിമീൻ വറുത്തത് മീൻ പൊള്ളിച്ചത് എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് എന്താ താങ്കൾക്ക് എന്തെങ്കിലും വേണോ അതെയോ എന്ത് ചെയ്യുകയാ അതിന് എന്തെങ്കിലും അതെയോ ഏഹ് എന്ത് അതെയോ അയ്യോ ഓഹ് സോറി കേട്ടോ എന്നാണ് വന്ന് കഴിച്ചത് എന്ത് ഫുഡ്ഡാണ് കഴിച്ചത് ഇവിടെ നിന്ന് ചിക്കൻ ബിരിയാണി ആണോ അയ്യോ ശരി ശരി ശരി ശരി അയ്യോ

അതെയോ അയ്യയ്യോ ഞാൻ ഫോൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒന്ന് നോക്കട്ടെ കേട്ടോ അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടൊന്നും ആരും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല അന്ന് കുറെ പേർ ഇവിടെയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നമൊന്നും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്താ പ്രോബ്ലം ആണോ ഇത് ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആഹ് അതെയോ ഓഹ് ശരി ശരി ശരി ഇപ്പം ഡോക്ടർ എന്താ പറഞ്ഞത് ഫുഡ്ഡ് പോയ്സൺ തന്നെ ആണോ അങ്ങനെ ആണോ അയ്യോ ഞങ്ങള് എന്താണ് അതിൽ എന്താ നമ്മൾ ഇപ്പോഴത്തെ എന്താ ട്രീറ്റ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണത് ഇല്ല ഞങ്ങൾ എപ്പോഴും എന്താണ് നല്ലപോലെ അന്നന്ന് ഉള്ള ചിക്കൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തലേ ദിവസത്തെ എണ്ണയോ ഒന്നും ഉപയോഗിക്കാറില്ല നല്ല ഫ്രഷ് എന്താണ് മീറ്റും ചിക്കൻ ഒക്കെ ആണ് നമ്മള് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടത്തന്നെ ആണ് കഴിച്ചതെന്ന് ഉറപ്പ് ഉണ്ടോ ഇല്ല വേറെ നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ അത് അല്ലാതെ കുട്ടി വേറെ എവിടെയെങ്കിലും പോയി ഫുഡ്ഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ അയ്യോ ആഹ് അതെയോ ശരി ശരി ശരി ശരി ആഹ് ഇപ്പം നിങ്ങളിപ്പം ബാലവില്ലൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലെ അവര് ബ്ലഡ് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഉണ്ടാകുമല്ലൊ അതിൻ്റ റിസൾട്ട് എന്തെങ്കിലും കിട്ടിയോ അപ്പം ഫുഡ്ഡ് പോയ്സൺ ഓഹ് ഫുഡ്ഡ് പോയ്സൺ തന്നെയാണെന്നാണ് പറയുന്നത് ഇല്ലെ ആഹ് ശരി ശരി ആഹ് ഞങ്ങള് ഇതുവരെ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഞങ്ങളുടെ ഹോട്ടലിനെക്കുറിച്ച് ഇതുവെരെ കാൻ്റീനിനെക്കുറിച്ചിട്ടോ ഒന്നും വന്നിട്ടില്ല ഇത് ഒരു ആദ്യമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾ ഇനി അതിന് എന്താണെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ ഓഹ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമല്ലൊ എപ്പോഴും ഞങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒക്കെയാണ് നല്ല വൃത്തിയും എല്ലാം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ചിക്കൻ ആയാലും ശരി അന്നന്ന് അത് അയ്യോ നിങ്ങൾ അതിൽ ഒന്നും ഒന്നും ചെയ്യാൻ ഇങ്ങനെ ഇത് അല്ലെ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾത്തന്നെ വേണ്ട ആ കുട്ടിക്ക് എന്താ ട്രീറ്റ്മെൻ്റിൻ്റെ ചിലവോ അത് ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ചിലവാക്കാം യാതൊരു പരാതിയും നിങ്ങൾ പെടേണ്ട എന്നാണ് ഒന്നും സംഭവിക്ക ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട എന്തോ ചിലപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കൈപ്പിഴയോ എന്തെങ്കിലും ആയിരിക്കും ഇവിട പിശക് പറ്റാത്ത വന്നിട്ടുണ്ടാവും കഴിച്ചത് ഇന്ന് എന്തെങ്കിലും അതുകൊണ്ടായിരിക്കാമെന്നാണ് തോന്നുന്നത് ഫുഡ്ഡോ നിങ്ങൾ അതിന് ഞങ്ങള് അത് ശ്രദ്ധിക്കാം കേട്ടോ ഓഹ് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം എന്നാൽ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഉം ഓക്കെ